ഒരു ചാർജർ വങ്ങിയിരുന്നു ആ ചാർജറെന്ന് പറഞ്ഞാൽ അദ്യത്തെ രണ്ട് മണിക്കൂർ കൊണ്ടുതന്നെ കേടായി അതില് ചാർജ് കേറുന്നില്ല മാത്രല്ല അത് കുത്തുമ്പോൾ വീട്ടില് ഷോർട്ട് സർക്യൂട്ട് ആവുന്നുണ്ട് അത് ചാർജ് കുത്തുമ്പോൾ അത് കുത്തുന്ന ആൾക്ക് കറൻറ് ചെറിയൊരു എർത്തിംഗ് വരുന്നുണ്ട് നന്നല്ലാത്തൊരു പ്രൊഡക്ട് ആണ് ആ ചാർജറു ചാർജ് ഒട്ടും കേറുന്നില്ല പിന്നും അ മൊബൈലിൻ്റെ ആ സോക്കറ്റിലും കേറുന്നില്ല ഏറ്റവും വോർസ്റ്റ് അയിട്ടൊരു പ്രൊഡക്ട് ആണ് ചാർജർന്നു പറഞ്ഞ്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും ഇല്ല ക്വാളിറ്റിയും ഇല്ല അത് മേടിച്ച് രണ്ട് മണിക്കൂറുകൊണ്ടുതന്നെ എല്ലാം കേടുവന്ന് ഇതായി